എനിക്ക് തയ്യലുമായിട്ട് ഞാന് കുറച്ചൊക്കെ തയ്ക്കുന്നതാണ് അത് നമ്മുടെ വീട്ടില് മാത്രമേ ഇപ്പോള് തയ്ക്ക്ന്നുള്ളു പിന്നെ അടുത്തുള്ള രണ്ട് മൂന്നു വീടുകളിലെയൊക്കെ തയ്യല് തയ്ക്കുന്നുണ്ട് പക്ഷെ അപ്പോള് അതില്നിന്നും കുറച്ചുംകൂടെ മുന്നോട്ടു കുറെ കൂടുതല് തയ്യല് കിട്ടാനുള്ള സാധ്യതയൊക്കെ ഞാൻ നോക്കുന്നുണ്ട് നമ്മുടെ വീടിൻ്റെ മുകൾവശത്ത് കുറച്ച് സ്ഥലമുണ്ട് അപ്പോള് അവിടൊരു അഞ്ചാറ് മെഷീനൊക്കെയിട്ട് തയ്ക്കാനുള്ള സൗഹചര്യം ഉണ്ട് ഷീറ്റൊക്കെയിട്ടെടുത്താൽ പറ്റും നമ്മുടെ അങ്ങനെ വീടുകളിലൊക്കെ ചുമ്മാ നില്ക്കുന്ന അടുത്തുള്ള ചേച്ചിമാരൊക്കെയുണ്ട് അവരെയൊക്കെ തയ്യല് പഠിപ്പിച്ച് അവിടെ അന്നേരം തയ്ക്കാനും അങ്ങനെ കൂടുതല് തയ്യല് നോക്കാനും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോള് നമ്മുടെ ഇങ്ങനെ കുറേ വർക്കുകളൊക്കെയുള്ള ഓരോ തയ്യലുകളും കല്യാണ ഡ്രസുപോലുള്ളതൊക്കെ തയ്ക്കാനൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ ഇങ്ങനെ കുറെ കൂടുതൽ ഇപ്പോള് വരുമാനമൊന്നുമില്ല നമുക്ക് കുറെ കൂടുതൽ തയ്ച്ചാൽ നമ്മള്ക്കും വരുമാനം കിട്ടും നമ്മടെ അടുത്തൊക്കെ ചെറിയ യു പി സ്കൂളൊക്കെയുണ്ട് അപ്പോള് അവിടത്തെ പിള്ളാരുടെ യൂണിഫോമൊക്കെ തയ്ക്കാനും നമുക്ക് ഓഡര് പിടിച്ചെടുക്കാനും കസ്റ്റമേഴ്സിനെ കിട്ടാനുമൊക്കെ സൗകര്യമുണ്ട് നമ്മളിപ്പോള് അവിടെ ഇപ്പോഴും വീടിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു റൂം പോലെ എടുത്താല് അവിടെ അഞ്ചെട്ട് മെഷീനിട്ട് അടുത്തുള്ളവർക്കൊക്കെ സൗകര്യക്കുറവാണെങ്കില്ത്തന്നെ അവർക്കവിടെ വന്നിരുന്നു തയ്ക്കാനും തയ്യല് പഠിക്കാനും ഒക്കെയുള്ള സൗകര്യം ഉറപ്പാക്കാം പിന്നെ തയ്ച്ചു കൊടുക്കുന്നതിനും അതിനുള്ള വരുമാനം നമുക്ക് കിട്ടുകയും ചെയ്യും പലർക്കും സ്കൂളിലൊക്കെ കൊടുക്കുവാണെങ്കില് നമക്കൊരത് സ്ഥിര വരുമാനമായിട്ട് മാറും തയ്യല് നല്ലതാണെങ്കിൽ കൂടുതൽ കൂടുതൽ കസ്റ്റമേഴ്സ് നമുക്ക് വരും നമ്മളുടെ ബുദ്ധിയുപയോഗിച്ച് നമ്മള് തയ്യല് പുനരാ പുനർ എന്തുവാ പുനര് ഉദ്ധരിക്കണം പിന്നെ അടുത്തുള്ള ജോലിയില്ലാത്ത മനുഷ്യര് ജോലിയില്ലാതെ നില്ക്കുന്ന ഒത്തിരി ആളുകളൊക്കെയുണ്ട് അവർക്കൊക്കെയൊരു ജോലിയാകും വീട്ടില്ത്തന്നെ ചുമ്മായിരുന്ന് എങ്ങും പോകാതെയൊക്കെയിരിക്കുന്ന ചേച്ചിമാരും ഒക്കെ ഉണ്ട് അവർക്കൊക്കെ പുറത്തേക്കിറങ്ങി സംസാരിക്കാനും ജോലിചെയ്യാനും ഒക്കെയുള്ള ഒരു വിഷയമാവും അതുകൊണ്ട് അതുകൊണ്ട് ഞാ എനിക്ക് ആഗ്രഹമുണ്ട് ഇത് ഇച്ചിരൂടെ പിന്നെ വിപുലീകരിക്കണമെന്ന് കുറെക്കൂടെ മെഷീനൊക്കെ വാങ്ങിച്ച് പിന്നെ തയ്യല് പഠിക്കാനും കുറേക്കൂടി തയ്ച്ചെടുക്കാനും വർക്കുകളൊക്കെ അതേൽ ചെയ്യാനും ഒക്കെയുള്ള ആഗ്രഹമൊക്കെയുണ്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നു

തയ്ച്ച് കൊടുക്കുമ്പോള് നമുക്കും അതിൻറ്റേതായ ലാഭം കിട്ടും